ഹലോ ചേട്ടാ ഞാൻ ഇന്നലെ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ കയറിയ രാത്രി വൈകി ഇന്നലെ തൊടുപുഴെന്ന് വീട്ടിൽ കൊണ്ടാക്കിയ കുട്ടിയായിരുന്നു ചേട്ടനോടൊരു നന്ദി വാക്കെന്ന പോലെ പറയാനായിട്ട് വിളിച്ചതാണ് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വന്തം അപ്പനേം ആങ്ങളമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലത്ത് ചേട്ടൻ എന്നെ സ്വന്തം ഒരു സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് എന്നെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചേർത്തതിന് എത്തിച്ചേർത്തതിന് ഞാൻ ചേട്ടനോട് വളരെയധികം താങ്ക് ഫുള്ളാണ് കാരണം ഞാനിന്ന് ഇന്നത്തെ കാലം നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ കാര്യങ്ങൾ കാരണം രാത്രി വൈകി വരുന്ന ഒരുപാട് പെൺകുട്ടികൾ ഈ അനുഭവം ഒരുപാട് വൃത്തി ഒരുപാട് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവം പങ്കുവെച്ചിട്ട് പങ്കുവെച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഒരുപാട് പേരുടെ ജീവിതം ഒരുപാട് പേരുടെ സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാനും അൽപ്പം പേടിയോടും വിഷമത്തോടും കൂടിയായിരുന്നു വണ്ടിയിലെത്തി കയറിയതും പക്ഷേ ചേട്ടൻ എന്നെ ചേട്ടൻ്റെ ഒരു സഹോദരിയെ പോലെ കണ്ട് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചതിന് ഞാൻ ചേട്ടനോടൊരുപാട് താങ്ക് ഫുള്ളാണ് ഞാനതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇനിയും ചേട്ടൻ്റെ പോലെയുള്ള നല്ല ആളുകൾ ഉള്ളെടുത്തോളം നമുക്ക് ഇതുപോലെയുള്ള രാത്രി വൈകി വരുന്ന പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന പെൺകുട്ടികൾ വരുന്ന സാഹചര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട് കാരണം ദൂരെ സ്ഥലത്തൊക്കെ പഠിക്കാനൊക്കെ പോകുന്ന ദൂരെ സ്ഥലത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിക്കാൻ പഠിച്ചിട്ട് വരുന്ന കുട്ടികളൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴ്ത്തേക്കും നമുക്ക് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പം ചേട്ടനെ പോലുള്ള ആളുകളാണ് ഓരോ വ്യക്തികൾക്കും ഇൻസ്പൈർ ആയിട്ട് വരുന്നത് അപ്പോൾ ചേട്ടൻ ഇനിയാണെങ്കിലും ചേട്ടൻ്റെ സഹപ്രവർത്തകർ കൂടെ ജോലി ചെയ്യുന്ന കൂടെ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളെടുത്ത് ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികളെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കേം അവരെ മനസിലാപ്പിക്കേം ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കൊരുപാട് ഒരുപാട് സന്തോഷമായിരിക്കും കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അങ്ങനെ ഈയൊരു കാലഘട്ടങ്ങളിൽ അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് നമ്മളടുത്ത് നല്ലൊരു പെരുമാറ്റം ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ ഞാനും എൻ്റെ കുടുംബവും ചേട്ടനോട് എപ്പോഴും കടപ്പെട്ടിരിക്കും ചേട്ടനോട് ഞങ്ങൾ ഒരുപാട് ഞാൻ നല്ല രീതിയിൽ നിന്നതിന് ചേട്ടന് നന്ദി പറയുന്നു